എൺപത് ശതമാനം ആളുകളും നെയ് തുന്നി എടുത്ത് വസ്ത്രങ്ങളായിരിക്കും ഇടാനായിട്ട് ഇഷ്ടപ്പെടുന്നത് കാരണം എന്ന് വെച്ചാല് ഒരു തുണി മേടിച്ച് അവരുടെതായിട്ടുള്ള ഇഷ്ടത്തില് തയിച്ച് എടുക്കുന്നതായിരിക്കും ഒരു വ്യക്തിക്ക് ഏറ്റവും സന്തോഷമായിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് ഒരു കടയിൽ ഒരു തുണി കടയിൽ പോയിട്ട് റെഡിമെയ്ഡായിട്ടൊര് വസ്ത്രം മേടിച്ചാല് അത് ആ വസ്ത്രം മേടിക്കുമ്പോൾ ഒന്നെങ്കിൽ ആ മേടിക്കുന്ന വ്യക്തിക്ക് പാകത്തിനായിട്ടുള്ള ഒരു വസ്ത്രം കിട്ടുമെന്ന് നിർബന്ധമില്ല ചിലപ്പോൾ ഒരു വ്യക്തിക്ക് ആ വസ്ത്രം ഇഷ്ടപ്പെട്ടു കാണുവായിരിക്കും എങ്കിലും ആ വസ്ത്രം ആ വ്യക്തിയുടെ അളവിന് ചേരുന്നതായിരിക്കില്ല ഒന്നെങ്കിൽ വണ്ണം കൂടുതലായിരിക്കും അല്ലെങ്കിൽ വണ്ണം കുറഞ്ഞതായിരിക്കും അങ്ങനെ വണ്ണം കൂടിയതാണെങ്കിൽ പിന്നീട് അടിച്ചെടുക്കേണ്ട മെഷീൻ വെച്ച് പിന്നീട് അടിക്കണ്ട ഒരു സാഹചര്യമൊക്കെ ഉണ്ടാകുന്നുണ്ട് അപ്പം അത്കൊണ്ട് അങ്ങനത്തെ അടിച്ചെടുക്കണ്ട സാഹചര്യമൊക്കെ ഒഴിവാക്കുകയാണെങ്കിൽ എന്തുകൊണ്ടും നല്ലത് തുണിയെടുക്കുന്നത് തന്നെയായിരുന്നു ഇപ്പം ഒരു വ്യക്തിക്ക് ഇഷ്ടപ്പെട്ട ഒരു ഡിസൈനിലുള്ള ഒരു തുണി മേടിച്ചിട്ട് ആ വ്യക്തിക്ക് ഇഷ്ടപ്പെട്ട രീതീയിൽ തന്നെ ആ തുണി നിർമ്മിച്ച് എടുക്കുന്നതായിരിക്കും ആ വ്യക്തിക്ക് ഏറ്റവും കൂടുതൽ സന്തോഷപ്രദമായിട്ടുള്ള കാര്യം ഇപ്പം പല ഡിസൈനിൽ ഫാഷനിലുമുള്ള ഫാഷൻസിൽ ഡ്രസ്സ് ഡ്രസ്സുകൾ ഇറങ്ങിയിട്ടുണ്ട് ഇതിന് ഉദാഹരണായിട്ട് പറഞ്ഞാല് ചില ബോയ്സിനേം ഗേൾസിനേയും സ്ക്രാച്ച് പണ്ടത്തെ ആളുകള് കീറി പോയ തുണികള് തുന്നി എടുക്കുകയാണ് സൂചിയും നൂലും വെച്ച് തുന്നി എടുക്കുകയാണ് ചെയ്യാറ് എന്നാൽ ഇപ്പോളത്തെ തലമുറ എന്ന് പറയുമ്പോൾ ഇങ്ങനെ തുന്നിയെടുത്ത് തയിച്ച് വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ഒരു ഡ്രസ്സ് വലിച്ചു കീറി സ്ക്രാച്ച് പോലാക്കിയെടുക്കുക എന്നാണ് ഇപ്പോഴത്തെ തലമുറ ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പം റെഡിമെയ്ഡായിട്ട് മേടിക്കുന്ന വസ്ത്രങ്ങളാണെങ്കിൽ പോലും ചില വ്യക്തികള് ആ വ്യക്തികളുടെ ഇഷ്ടത്തിനനുസരിച്ച് തയിച്ച് എടുക്കുകയും കീറി കളയുകയും ഒക്കെ ചെയ്യുന്ന ഒരു ഒരു തലമുറയാണ് ഇപ്പോഴത്തെ തലമുറയെന്ന് പറയുന്നത് അപ്പം എന്ത്കൊണ്ടും പ്രയോജനം ഡ്രസ്സ് തുണി മേടിച്ചിട്ട് അതിനനുസരിച്ച് അവർക്കിഷ്ടുള്ള രീതികള് തയിച്ചെടുക്കുന്നതായിരിക്കും നല്ലത് പിന്നെ വിപണിയില് ഒരുപാട് തുണി കടകള് ഉണ്ട് എങ്കിലും എല്ലാ തുണിക്കടയിലും വസത്രങ്ങള് എല്ലാ സമയത്തും ചില വിപണയിലെ റെഡിമെയ്ഡ് വസ്ത്രങ്ങളെന്ന് കൈ കൊണ്ട് നിർമ്മിച്ച വസ്ത്രങ്ങൾ തന്നെ ആയിരിക്കും ഏറ്റവും നല്ലത് അതിൽ നിന്ന് ഏറ്റവും വലിയ വ്യത്യാസം എന്ന് പറയുന്നത് ഇപ്പം റെഡിമെയ്ഡായിട്ട് മേടിക്കുന്ന ഒരു വസ്ത്രം ഇപ്പം ഉദാഹരണത്തിന് പറഞ്ഞാലൊരു ഒരു പെൺകുട്ടിയുടെ ഉടുപ്പ് മേടിക്കുകയാണെങ്കിൽ ആ ഉടുപ്പിന് ആയിരം രൂപയ്ക്ക് എന്തായാലും ഒരു ഉടുപ്പിന് വില കൊടുക്കേണ്ടതായിട്ട് വരും എന്നാലിപ്പോഴ് ഒരു നോർമൽ തുണി മേടിച്ചിട്ട് തയിക്കുകയാണെങ്കില് അതൊരഞ്ഞൂറ് രൂപയ്ക്ക് ഒതുങ്ങുന്ന രീതിയിലായിരിക്കും അങ്ങനെ തുണി മേടിച്ച് തയ്പ്പിച്ചെടുക്കുമ്പോൾ നമുക്ക് ലാഭം കിട്ടുമെന്ന് അഞ്ഞൂറ് രൂപ നമുക്ക് ലാഭം കിട്ടും ആയിരം രൂപയെക്കാളും ലാഭം കിട്ടുന്ന അഞ്ഞൂറായത് കൊണ്ട് തുണി മേടിച്ച് തയിക്കുന്നതായിരിക്കും ഉത്തമം ലാഭത്തിൻ്റെ കാര്യത്തിൽ മാത്രല്ല മറ്റ് പല കാര്യങ്ങളിലാണെങ്കിൽ പോലും ഓരോ ഒരു വ്യക്തിക്ക് ഇഷ്ടമുള്ള രീതിയില് ഒരു ഡ്രസ്സ് തയിച്ചിട്ട് ആ അതേ ഡ്രസ്സ് മറ്റൊരു വ്യക്തിക്ക് ഇഷ്ടപ്പെടണം എന്ന് നിർബന്ധവില്ല അപ്പം തുണി മേടിച്ചിട്ട് തയ്ക്കുന്നത് തന്നെയായിരിക്കും ഏറ്റവും ഉത്തമം ഇപ്പം ഞാനൊരു തുണി മേടിച്ചിട്ട് അത് എൻ്റെ ഇഷ്ടപ്രകാരം തയിച്ച് എടുക്കുകയാണെങ്കിൽ അതെനിക്ക് സന്തോഷകരമായ കാര്യവായിരിക്കും അതുപോലെ തന്നെ ഞാനിപ്പം ഒരു തുണി മേടിച്ച് തയിച്ച് എടുത്തിട്ട് അത് മറ്റൊരാൾക്ക് കൊടുത്ത് കഴിഞ്ഞ് അവർക്കത് ഇഷ്ടപ്പെടണമെന്ന് യാതൊരു നിർബന്ധവുമില്ല